മലയാളികളെ സംബന്ധിച്ചെടുത്തോളം മലയാളം തന്നെയാണ് മലയാളിയെ വ്യത്യസ്ഥനാക്കുന്നത് മലയാളം ഇല്ലാതെ മലയാളി ഇല്ല എന്ന് പറയ്ന്നെന്നാണ് ശരി അത് ഏത് മതത്തിലും ഏത് വിഭാഗത്തിലും പെട്ട ആളായിക്കോട്ടെ ക്രിസ്ത്യനായിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിംമായിക്കോട്ടെ എന്നിരുന്നാലും മലയാളം തന്നെയാണ് എല്ലാവരേം ഒന്നിപ്പിച്ച് നിർത്തുന്ന പ്രധാന ഘടകം എന്ന് തന്നെ പറയാം ഇപ്പോഴും ഓരോ മലയാളിയും അവരുടെ ജോലി സ്ഥലത്തോ വിദേശത്തോ എവിടെ ആയിക്കോട്ടെ അവർ ആ രാജ്യത്തെ ഭാഷയാണ് സംസാരിക്കുന്നെങ്കിൽ പോലും നമ്മുടെ ഓരോത്തർടേം തനതായ ആഘോഷങ്ങൾ വരുന്ന സമയത്ത് ക്രിസ്മസും ഓണം റംസാന് എന്തുമായിക്കോട്ടെ എന്തും വരുന്ന സമയത്ത് ഇവർ എല്ലാവരും ഒത്ത് ചേരുമ്പോൾ അവരുടെ ഭാഷയായ മലയാളം തന്നെയാണ് കൂടുതൽ സംസാരിക്കാറ് അവിടെ ആരും ഇംഗ്ലീഷോ മറ്റ് ഭാഷകളോ സംസാരിക്കാറില്ല എന്ന് തന്നെയാണ് സത്യം യാഥാർത്ഥ്യം അത് തന്നെയാണ് ഇപ്പോഴും മലയാളികൾക്ക് കൂട്തലായിട്ട് മറ്റുള്ളവരും ആയിട്ട് സംബാദിക്കാൻ കഴിയുന്ന ആശയവിനിമയം നടത്താനും അവനോൻ്റെ ഭാഷയായ മലയാളത്തിൽ തന്നെയായിരിക്കും നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിൽ തന്നെയാണ് അതിന് ഏറ്റവും നന്നായിട്ട് സാധിക്കുക ഓണംത്തിന് അത് ആയിക്കോട്ടെ മലയാളത്തില് ഇഷ്ടം പോലെ ധാരാളം ഓണപ്പാട്ട്കളുണ്ട് ആ ഓണപ്പാട്ട്കൾ മലയാളത്ത് തന്നെ പാടുമ്പെ അല്ലേ മലയാളത്തിലാണെങ്കി മാത്രമേ അതിനയ്ൻറ്റേതായ ഭംഗിയുള്ളു എങ്കി മാത്രമേ നമക്കാ ഓണപ്പാട്ടാ രീതീലാസ്വദിക്കാൻ പറ്റൂള്ളൂ അത് വേറെ നല്ലൊര് ഭാഷേൽ പാടുമ്പൊ അല്ലെങ്കി അവര്ടേതായ ഭാഷേലേക്ക് മൊഴി മാറ്റി പാടുമ്പോളൊരിക്കലതൊരു മലയാളത്തിൻ്റെ ഒരു ഭംഗി അയിനുണ്ടാവില്ല ഓണം എന്ന് പറയും മലയാളം അതിപ്പം ക്രിസ്മസും ക്രിസ്മസിന് ധാരാളം ആൾക്കാൾ കരോള് ഗാനങ്ങളൊക്കെ മറ്റ് ഭാഷേലുണ്ടെങ്കി പോലും എപ്പഴും നമ്മളെ സംബന്ധിച്ച് എപ്പോഴും മലയാളത്ത് കേക്കുമ്പഴാണ് അതിൻ്റെ അയ്ൻ്റെ ഉന്നതി പിന്നെ നമ്മടെ വീട്ടിലെ ആഘോഷങ്ങളും എന്തുവായിക്കോട്ടെ നമ്മടെ നാട്ടി നടക്ക്ന്ന വിവിധ കലാ മേളകളിലും പിന്നെ അമ്പലങ്ങളിലോടും പള്ളികളോടും അനുവദിച്ചെട്ക്ക്ന്നെല്ലായെട്ത്തും മലയാളം തന്നെയാണ് എപ്പോഴും നമ്മള് ഉപയോയിക്കാറ് നമ്മളെ സംബന്ധിച്ച് നമ്മടെ ഭാഷ മലയാളവാണ് നമ്മള് മലയാളം തന്നെ ഉപയോയിക്ക്ന്നു അവറും മലയാളത്തിൽ സംസാരിക്കുമ്പോഴ് നമക്ക് എന്തെന്നില്ലാത്ത ഒരു സ്നേഹം മറ്റ്ള്ളവരോട്ള്ള സ്നേഹം പ്രകടമാക്ക്വാനും മറ്റ്ള്ളവർക്ക് നമ്മളോട്ള്ള സ്നേഹം പ്രകടമാക്കാനൊക്കെ എപ്പഴും നല്ലത് മലയാളം തന്നെയാണ് ഇന്നത്തെ കാലത്ത് കുട്ടികൾ മലയാളം വിട്ട് മറ്റ് ഭാഷകളൊക്ക പഠിക്ക്ന്നുണ്ടെങ്കിലും മലയാളത്തെ ഉപേഷ് കൊണ്ട് പഠിക്ക്ന്നുണ്ടെങ്കിലും എപ്പോഴും അവർ കൂട്തല് സംസാരിക്ക്കയും അവര്ടെ ആഘോഷങ്ങളിലും സാംസ്കാരിക പാരങ്ങളാഘോഷിക്കാനൊക്കെ അവര് ഉപയോഗിക്ക്ന്നെപ്പോഴും മലയാളം തന്നെയാണ് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം മലയാളികൾക്ക് മലയാളം കഴിഞ്ഞെ എന്ത്മുള്ളു കാരണം വർഷങ്ങളായിട്ട് നമ്മള് കേട്ട് നമ്മള് നമ്മള് ജനിച്ചപ്പം തന്നെ ആദ്യം പറയ്ന്നത് തന്നെ മലയാളവാണ് അത്കൊണ്ട് തന്നെ എത്ര കാലം എത്ര കഴിഞ്ഞാലും

ഇപ്പോഴും മലയാളത്തിൽ അടിസ്ഥാനമാക്കിയുള്ള തന്നെയായിരിക്കും എന്ന് തന്നെയാണയ്ൻ്റ വസ്തുത മലയാളമില്ലാതെ മലയാളി ഇല്ല എല്ലാ നമ്മുടെ എല്ലാ ആഘോഷങ്ങളും എല്ലാവര്ടെ ആഘോഷങ്ങളിലും മലയാളികൾ അതേത് നാട്ടിലും ആയിക്കോട്ടെ ലോകത്തിൻ്റ ഏത് കോണിലായാലും ഏത് അവരേത് വിഫാഗത്ത്പ്പെട്ടവരായാലും എന്ത് വ്യത്യസ്ഥത പുലർത്ത്ന്നവരായാലും മലയാളികൾലാഘോഷങ്ങൾ എന്നും മലയാളികളെ സംബന്ധിച്ച് അഭിമാനമുള്ള കാര്യമാണ് എപ്പോഴും മലയാളം തന്നെയാണ് അതിൽ മുന്നോട്ട് നിക്ക്ന്നുള്ളാണ് എല്ലാ നമ്മുടെ എല്ലാ ആഘോഷങ്ങളും മലയാളത്തെ ചുറ്റിപ്പറ്റി തന്നെയാണ് മലയാള ഭാഷ ചുറ്റിപ്പറ്റിയാണ് നടക്ക്ന്നത് എന്ന്ള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യവും സത്യവും